എനിക്ക് അഭിമാനം തോന്നുന്നൊരു എന്തെങ്കിലും ഒരു സാധനം എന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പ്രണയത്തിലായ സമയത്ത് ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും നല്ല രീതിയ്ക്കുതന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളൊന്നിച്ച് പുറത്തു പോകുമ്പോഴും എന്താ പറയുക കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കലുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു നല്ല ഫോട്ടോ നോക്കിയിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു വരച്ച ചിത്രം ഞാൻ വീട്ടിലും പിന്നെ അവളെയൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞു ഇത് ഒറിജിനല് എന്താ പറയുക നിങ്ങളെപ്പോലെത്തന്നെ ഉണ്ട് കണ്ടാൽ കറക്റ്റാണ് അങ്ങനത്തെ ഒരു ടോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കാണിച്ചപ്പോഴും അവളും പറഞ്ഞു ആയിത് നമ്മളെപ്പോലെ തന്നെ ഉണ്ട് അങ്ങന ഒരു വർത്തമാനമൊക്കെ വന്നിരുന്നു അതു ശരിക്കും എനിക്ക് അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ വരച്ചതിൽ ഒരു ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലതാണെന്നൊക്കെ ഒരു അഭിപ്രായമൊക്കെ വന്നതുകൊണ്ട് എനിക്ക് നല്ലയൊരു എന്താ പറയുക ഭയങ്കര ഒരു കാര്യമായിട്ട് തന്നെയാണ് അത് തോന്നിയത് പിന്നെ ഞാൻ കുറേ അല്ലാണ്ട് ഡ്രോയിങ്സ് വരച്ചതൊക്കെ നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാടുപേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് എന്താ പറയുക അഭിമാനം തോന്നുന്നൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്